ഞങ്ങളുടെ ഉപജീവിത മാർഗ്ഗം നല്ല രീതിയിൽ തന്നെ വൈദ്യുതി ആശ്രയിക്കുന്ന ഒന്നുതന്നെയാണ് ഞങ്ങളൊരു ഒരു ഹോട്ടൽ ഭക്ഷണ ശാലയാണ് നടത്തിക്കൊണ്ടു വരുന്നത് അതിന് അതിനെ സംബന്ധിച്ചെടത്തോളം അതിൻ്റെ കറികൾക്കുള്ള കൂട്ടുകളും മറ്റു കാര്യങ്ങളും അരയ്ക്കുന്നതിനും അതുപോലെതന്നെ ചേർക്കുന്നതിനും നല്ല രീതിയിൽ തന്നെ വൈദ്യുതി ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അതിലുപരി ഉപഭോക്താക്കൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്കെന്തെങ്കിലും രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഫാനൊക്കെ ഫാനൊക്കെ ഇടുന്നതിനു വേണ്ടിയിട്ട് കറെണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഉപജീവിത മാർഗ്ഗമായിട്ടുള്ള ഭക്ഷണശാലയിൽ ആശ്രയിക്കുന്ന ഒന്നാണ് അതുകൊണ്ടു തന്നെ കറെണ്ട് പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മറ്റു രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കറെണ്ടില്ലാത്ത സമയത്ത് ഞങ്ങളനുഭവിക്കുന്നു